ഇപ്പോൾ ചരിത്രപരമായ ഒരു പാലസ് തന്നെയാണല്ലോ മൈസൂർ ടിപ്പു സുൽത്താൻ്റെ കോട്ട എന്ന് പറയുന്നത് അതിലൂടെയൊക്കെ നമ്മളൊരുപാട് നടന്നിട്ടുണ്ട് എൻ്റെ ചെറിയ ഞാൻ സ്കൂൾ കാലഘട്ടത്തിലും ഇപ്പോൾ ഇപ്പോഴും എൻ്റെ ഫാമിലിയോടൊപ്പം അവിടെ പോയിട്ട് വന്നതാണ് ഇപ്പം ആ ഒരു പാതയിലൂടെ ന നമ്മൾ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരനുഭവം നമുക്ക് പഴയ കാലങ്ങളിലെ ഓരോ ഇപ്പം ചിത്ര ചിത്ര കൊത്ത് പണികളായിക്കോട്ടേ ഇപ്പം അവിടെയുള്ള കണ്ണാടികളായിക്കോട്ടേ അവിടെയുള്ള രാജ്യസഭയായിക്കോട്ടേ പിന്നവരുടെ ഇപ്പോൾ ടിപ്പു സുൽത്താൻ്റെ പ്രതിമ ആയിക്കോട്ടേ എന്ത് കാണുമ്പോഴും നമുക്കൊരാശ്ചര്യമാണ് ഓ നമ്മൾ ആ ഒരു കാലഘട്ടത്തെ നമ്മൾ നമ്മളിലേക്കും കൊണ്ട് വരികയാണ് ഇപ്പം നമ്മൾ അവിടെ എന്താണ് നടന്നത് എന്നുള്ളതൊക്കെ നമ്മൾ വായിച്ചോ അല്ലെങ്കി ൽ ആരുടെയെങ്കിലും അടുത്തു നിന്ന് കേട്ടോ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് പഴശ്ശീകുടീരത്തിലൊക്കെ പഴശ്ശീകുടീരത്തിലും അതേപോലെ പഴശ്ശീപാർക്കിലും ഒക്കെ നമ്മൾ പോകാറുണ്ട് അപ്പോൾ അവിടൊയൊക്കെ പോകുമ്പോൾ നമുക്ക് കേട്ടറിവിൽ നമ്മളിങ്ങനെ ഓ ഓരോ നമുക്കൊരാശ്ചര്യം ഉണ്ടാകുമല്ലോ അവിടെ കാണാനും പോകാനും അപ്പോൾ പോകുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് അവിടെയൊക്കെ കാണുമ്പോൾ